സാങ്കേതിക വിദ്യാഭ്യാസം ചെറുപ്പത്തിലേ തുടങ്ങുന്നതാണ് നല്ലത് എന്നുപറഞ്ഞാൽ ചെപ്പ് ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങാവുന്ന ഒരു സംഗതിയാണ് സാങ്കേതികവിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ചരിത്രം പഠിത്തം അക്ബറ് എത്ര പേരെ ഇത് ചെയ്തു എന്തുവാ എന്തെല്ലാം പരിഷ്ക്കാരം അശോകൻ എത്ര മരം നട്ടു അല്ലെങ്കിൽ പഴയ രാജാക്കന്മാരെ പഴയ രാജാക്കന്മാരുടെ കഥയും അതെല്ലാം എല്ലാവരെയും കംപൽസറി പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രയോജനമുണ്ടാകില്ല ആ വിഷയങ്ങളിൽ താല്പര്യം ഉള്ളവർക്ക് അതിൻ്റെതായ പ്രായവും പരുവവും വരുമ്പം അവർക്ക് തിരഞ്ഞെടുത്ത് പഠിച്ച് അതിന് ഡിഗ്രി ഒക്കെ നേടാവുന്നതേ ഉളളൂ ഈ സാങ്കേതികവിദ്യയെ സംബന്ധിച്ചിട്ട് ചെറുപ്പകാലം പഠിത്തം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് വളരെ അധികം പ്രയോജനപ്പെടും തറൈൻ യുദ്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ അക്ബറിൻ്റെ ഭരണ പരിഷ്കാരങ്ങളോ നമ്മൾ കാണാതെ പഠിച്ചെഴുതിയിട്ട് അതുകൊണ്ടൊന്നും ഭാവി ജീവിതത്തിന് കാര്യമായിട്ട് പ്രയോജനപ്പെടാൻ വഴിയില്ല സാങ്കേതിക കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം ഈ ടെകനിക്കൽ ഇത് കിട്ടിയാൽ നമുക്ക് ധാരാളം പ്രയോജനമുണ്ടാവും അത് നമുക്ക് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു പ്രയോഗിക്കാൻ പറ്റും അതുകൊണ്ട് സാങ്കേതികവിദ്യാഭ്യാസം എല്ലാവർക്കും എല്ലാവരും എടുക്കണമെന്ന് വെയ്ക്കുകയും ആവശ്യവില്ലാത്ത ചരിത്രങ്ങളും ആവശ്യം ഇല്ലാത്ത ഭാഷകളും നിർബന്ധിച്ച് പഠിപ്പിക്കാതെ അത് താല്പര്യം ഉള്ളവർ ചെയ്തോട്ടേയെന്ന് ആ രീതിയിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് എൻ്റെ വിശ്വാസമതാണെൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസം വളരെ അത്യാവശ്യം ഉള്ളൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സാങ്കേതികവിദ്യാഭ്യാസത്തിൻ്റെ മികവുകൊണ്ടാണല്ലോ ഇപ്പം ഈ കുട്ടികളെല്ലാം എൻ്റെ പരിചയത്തിലുള്ള കുട്ടികളെല്ലാം ഈ നെറ്റിലും എല്ലാം വളരെ സ്മാർട്ടാ എന്തെല്ലാം എളുപ്പത്തിലാ കാര്യങ്ങളറിയുന്നത് ന്യൂസ് കേൾക്കുന്നത് മുതൽ എന്തെല്ലാം ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്